പാലക്കാട് ജില്ലയിൽ ഒരുപാട് ചരിത്ര പ്രധാനമായ സ്ഥലങ്ങളുണ്ട് പ്രധാനമായും പറയുവാണെങ്കിൽ പാലക്കാട് കോട്ട ടിപ്പു സുൽത്താൻ ബ്രിട്ടീഷ്ക്കാരെ രക്ഷപ്പെടാൻ വേണ്ടി കെട്ടിയതായിരുന്നു പാലക്കാട് കോട്ട ഒരുപാട് ചരിത്രങ്ങൾ പറയുന്ന അല്ലെങ്കിൽ ചരിത്ര നിമിഷങ്ങൾ ഓർമിപ്പിക്കുന്ന സ്ഥലമാണ് ഇത് ഞാൻ അവിടെ പോയി സന്തോഷിച്ചിട്ടുണ്ട് ഒരുപാട് പ്രകൃതി മനോഹരമായ സ്ഥലമാണ് അതുപോലെ തന്നെ കൊല്ലംകോട് ജില്ലയിലെ പാലക്കാട് ജില്ല കൊല്ലംകോട് ജില്ല സീതാർ കുണ്ട് അവിടെ ഐതീഹ്യ പ്രകാരം സീതാദേവി അവിടെ ആദ്യമായി വന്ന് സ്നാനം ചെയ്ത സ്ഥലമായി അവിടെ അത് ഓർക്കുന്നു സീതാർ കുണ്ടിലേക്ക് പോവണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ഇതുവരെ പോയിട്ടില്ല